ഹലോ ഇത് ഹലോ ഇത് കേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന കടയാണോ ഏതൊക്കെ കേക്കുകളാണ് അവിടെ നമുക്ക് ഇങ്ങനെ മേടിക്കാൻ പറ്റുന്നത് ഫ്ലോ ആയിട്ടുള്ളത് ഒരു ബർത്ത് ഡേ പാർട്ടിക്കായിരുന്നു

ആ രണ്ട് ദിവസം രണ്ട് ദിവസത്തിനുള്ളിൽ വേണമായിരുന്നു ഈവനിങ്ങാണെ എപ്പോൾ എപ്പോഴേക്കു കിട്ടും ഒരു ഒൻപത് മണിയാകുമ്പോൾ

ബ്ലാക്ക് ഫോറസ്റ്റിന് എത്ര റേറ്റെത്രയാണ് റെഡ് റെഡ്ഡാകുമ്പോഴോ ആ എന്നാൽ ബ്ലാക്ക് ഫോറസ്റ്റ് ഒരു രണ്ടരക്കിലോയുടെ കേക്ക് നമുക്ക് മതി ആ വേണം വേണം ആ പേരെഴുതണം പേരെഴുതണം പിന്നെ പേരും ഇത് ഡീറ്റെയിൽസും വാട്സപ്പ് ചെയ്തേക്കാം പിന്നെ കേക്ക് നിങ്ങൾ വീട്ടിൽ കൊണ്ടു പോയി ഞങ്ങൾ പാർട്ടി നടത്തുന്ന പ്ലെയ്സിൽ കൊണ്ടു തരുമോ ആ ഓക്കെ ഓക്കെ ആ അല്ല ഇനിയിപ്പോൾ ഫംഗ്ഷനല്ല നമുക്ക് ഇടയ്ക്കാവശ്യം വരാറുണ്ട് അപ്പോൾ അങ്ങനെ മേടിക്കുമ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റിട്യൂട്ടിൽ എന്തൊക്കെ കേക്കുകളാണപ്പോൾ ഉള്ളത് ഇപ്പോൾ നമ്മൾ നേരിട്ട് വന്നു മേടിക്കുകയാണെങ്കിൽ ഓർഡറനുസരിച്ചു മാത്രമേ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ തന്നെ നേരത്തെ ഇത് പ്രിപ്പയറായിട്ടിരിപ്പുണ്ടോ അങ്ങനെ ആ ആ ഓ ഓക്കെ അപ്പം നിങ്ങളുടെ ആ കേക്കിൻ്റെ പടവും വാട്സാപ്പിലൊന്നയച്ചേക്കാമോ ഓക്കെ ആ ആ ഓക്കെ ഓക്കെ ഓക്കെ ആ